നൃത്തമെന്നാൽ കേരളീയ നൃത്തത്തെപ്പറ്റി എൻ്റെ സ്വപ്നങ്ങളെന്നു പറഞ്ഞാൽ എനിക്ക് വലിയൊരു നര്ത്തകിയാകാനാണ് നൃത്തം പഠിക്കണം നൃത്തത്തിൻ്റെ പഠിക്കുന്നതിനേക്കാളുപരി കൂടുതലും പഠിച്ച് എനിക്ക് പല പല പുരസ്കാരങ്ങളും നേടണമെന്ന് എനിക്കാഗ്രഹമുണ്ട് അതുപോലെതന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് എനിക്ക് ഗുരുവായൂരമ്പല നടയിൽ പോയി എനിക്ക് എനിക്കൊന്ന് നൃത്തം വയ്ക്കണമെന്നുള്ളത് അതായത് എനിക്കത് എൻ്റെ മെയിൻ ഐറ്റമാണ് നമ്മുടെ എനിക്കേറ്റവും എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെന്നു പറഞ്ഞാല് എനിക്ക് എനിക്ക് കലാതിലകമാകണമെന്നുണ്ട് എൻ്റെ വലിയൊരു അന്ത്യാഭിലാഷമാണ് എനിക്ക് കലാതിലകമാകണം ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കിപ്പോള് കേരളത്തിൽ നിന്നല്ലാതെ എന്നെ എനിക്ക് പുറത്തു പോയി ഈ എൻ്റെ നൃത്തം എനിക്ക് അവിടുത്തെ പുറം ദേശത്തും എനിക്ക് കാഴ്ച വയ്ക്കണമെന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട് അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട് അതുപോലെതന്നെ എനിക്ക് ഇവിടുള്ള എല്ലാ പിള്ളാരെയും തന്നെ നൃത്തത്തിലേക്കു കൊണ്ടുവരണം എന്ന ഒരാശയം എൻ്റെ മനസ്സിലുണ്ട്